ഹലോ ആ ഇത് സംഗീത ജ്വല്ലറി ആണോ

ആ ഇത് ബാബു സാറാണേ ഞാന് ആ പാറത്തോട്ടില്നിന്നാണ് പാറത്തോട്ടില്നിന്ന് ആ എന്നാ വിശേഷം ഞാന് മകളുടെ കല്യാണമൊക്കെ വരുവാണേ അപ്പോള് ഒരു കൊലുസൊന്നു മാറി എടുക്കണമെന്നുണ്ട് പഴയതാണ് ള്ളത് അപ്പോള് അതൊന്നു മാറി എടുത്തേക്കാം അപ്പോള് അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണിപ്പോൾ നമുക്കതിൻ്റെ സ്വർണ്ണത്തിൻ്റെ ഒരു വില കൂടിനില്ക്കുന്ന സമയമാണെന്നു തോന്നുന്നു അപ്പോള് ആ ഇല്ലില്ലാ ആയിട്ടില്ല ആ അതെ നയൻ വൺ സിക്സ് തന്നെയാണു സാധനം അപ്പോള് മാറുമ്പോള് ഒരുപാട് നഷ്ടം വരാൻ സാധ്യതയുണ്ടോ നയൻ വൺ സിക്സ് തന്നെയാണ് ആ ആ ആ ആ അപ്പോള് അത് ആ ആ ഒരു എന്താണ് ഏറെക്കുറെ ഒരു രണ്ടു പവൻ്റെയേ കാണുകയുളളു ആ ആ ഉണ്ട് ആ അതെങ്ങനെയാണ് നമുക്കത് ഈ നയൻ വൺ സിക്സ് മുദ്ര പതി ക്കുന്നതാണോ അതോ ഹാൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണോ ഹാൾ മാർക്കാണ് ആ ആ ഉവ്വൊവ്വ് ആ അപ്പോഴതിനു കുഴപ്പമില്ല നമുക്ക് ഗ്യാരണ്ടീടായിട്ടുള്ള സാധനങ്ങള് തന്നെ ഞങ്ങള് വന്നു നേരിട്ടെടുത്താല് മതിയല്ലോ ഇപ്പോള് എങ്ങനെയാണു നമുക്ക് സ്വർണ്ണവിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്തേലും ഒക്കെ ഉണ്ടോ അതോ കൂടിത്തന്നെ നില്ക്കുന്ന റേറ്റാണോ അതു കുടുതലാണ് ആ ആ ആ ആ ആ ആ ആ ഈ വിഷു ഒക്കെ ആയതു കൊണ്ടെങ്ങനെയാണ് വല്ലതും മാറ്റം വരുന്നുണ്ടോ ഉണ്ട് അപ്പോള് പണിക്കൂലിയില് കുറവോ ഇതിൻ്റെ കാര്യം മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ വേറെ പലതും ചെയ്ഞ്ചെയ്ത് എടുക്കാനുണ്ട് ആ ഒരു വേറെ പർച്ചേസുണ്ട് അപ്പോള് എനിക്ക് മാറണം വേറെ അല്പം സാധനങ്ങൾ അല്പം വളയും കമ്മലും ഒക്കെ എടുക്കാനുണ്ട് സ്വർണം ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതില് മാലയൊക്കെയെന്നു പറഞ്ഞാല് ഈ കൈ കൊണ്ടു പണിയുന്ന സാധനങ്ങളുണ്ടോ അല്ലാതെ ഈ മെഷീൻ വർക്കല്ലാതെ മെഷീൻ മെഷീൻ വർക്കാണ് മൊത്തം ആ ഉണ്ട് ഉണ്ട് ആ അതുണ്ട് അല്ലേ അതി നെക്ലെസ് എടുത്താല് നമുക്കതിനകത്ത് ഈ ഡയമണ്ട് കൂടി ചേർന്ന അടയാളമുണ്ട് അല്ലെ നെക്ക്ളേസില് ആ ആ വേറെ ആ ഉവ്വുവ്വ് ആ ആ ഓ മ്മ് മ്മ് പറയാൻ പറ്റില്ല അപ്പോഴങ്ങനെയാണെങ്കില് ഡയ്മണ്ട് വേണ്ടെന്നു വയ്ക്കാം അല്ലെങ്കില് അപ്പോള് നമുക്ക് ആ നെക്ക്ളേസൊക്കെ വാങ്ങുവാണെങ്കില് ഇപ്പോള് ഡയമണ്ട് കൂടാതെതന്നെ വള നയൻ വൺ സിക്സ് തന്നെ എടുക്കാം എന്നുള്ളതാണ് ആ അതായിരിക്കും കൂടുതൽ നല്ലതല്ലേ ആ ഞാന് അടുത്ത ആഴ്ച തന്നെ ഇറങ്ങാം ആ ആ ഓക്കെ എങ്കില് നമുക്ക് ഏ ആ ആ ഓ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഫോട്ടോ ഇടാൻ പറ്റുമോ ഫോട്ടോ ഇട്ടുതരാമോ അത്യാവശ്യമുള്ള കളക്ഷൻസിൻ്റെ ഫോട്ടോ ആയിട്ടിടണം ആ ആ ആ ഹാ ആ ഉവ്വ ഉവ്വ ആ ആ ആ ഉവ്വ് ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ അങ്ങനെ ആ അപ്പോള് ഞാൻ ഇറങ്ങിയേക്കാം ഞാൻ അടുത്തയാഴ്ചതന്നെ ഇറങ്ങിയേക്കാം കേട്ടോ ഓക്കെ ഓക്കെ താങ്ക്യൂ